ഇന്ത്യയിലെ വിദ്യഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ബുക്കുകളിൽ കൂടുതൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിദ്യാഭാസമാണ് കാരണം ബുക്കുകളിൽ എന്താണോ ഉള്ളത് അത് തന്നെ നമ്മള് പഠിപ്പിച്ച് കൊടുക്കും ടീച്ചേഴ്സും അങ്ങനെയാണ് ചെയ്യുക ബുക്ക് നോക്കിയിട്ട് പഠിപ്പിക്കുന്ന ഒരു വിദ്യഭ്യാസമാണ് അല്ലാതെ ജനറൽ ആയിട്ട് ഉള്ള നോളേഡ്ജുകൾ പകരുന്ന ഒരു വിദ്യഭ്യാസമല്ല എൻ്റെ അഭിപ്രായത്തിൽ ബുക്കുകള് കൊണ്ട് ബുക്ക് ബുക്കുകൾ നോക്കിയിട്ട് അങ്ങനെ പകർത്തി വയ്ക്കുന്ന ഒരു വിദ്യാഭ്യാസമല്ല നമുക്ക് ആവശ്യമുള്ളത് പകരം സൊസൈറ്റി എന്താണ് സൊസൈറ്റിയിലെ പീപ്പിൾ എങ്ങനെയാണ് ആൾക്കാർ എങ്ങനെയാണ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ അതിന് എല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള നോളേഡ്ജു അല്ലെങ്കിൽ വളർന്ന് വരുന്ന കുട്ടികളെ ലൈഫ് എങ്ങനെ മുന്നോട്ട് ലീഡ് ചെയ്യണം അവര് സൊസൈറ്റിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ അവരിനെ നേരിടാൻ വേണ്ടി അവരിനെ തയ്യാറാക്കുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് നമക്ക് ആവിശ്യം അല്ലാതെ വെറും ബുക്കുകൾ മാത്രം പഠിച്ചോണ്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം ബുക്കില് നോക്കി പോയ പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ എവിടെയും പ്രവർത്തനമാക്കാൻ പോകുന്നില്ല ജസ്റ്റ് എക്സാം മാത്രം ജയിക്കാൻ ഉപകാരപെദുകയുള്ളു സൊ അങ്ങനെയുള്ള എഡ്യൂക്കേഷനിൽ നിന്നും എന്താണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യം അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് അവർക്ക് പഠിക്കാൻ താല്പര്യം അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ എന്തിലൊക്കെയാണ് അത് അനുസരിച്ചിട്ട് അത് വളർത്തി കൊണ്ട് വരുന്ന ഒരു എഡ്യൂക്കേഷനാണ് നമുക്ക് ആവശ്യം